എൻ്റെ വീട്ടിലെ പൂന്തോട്ടങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ചില ഒരു ചിലവേറിയതുമല്ല സാധാ രീതിയിൽ ഫ്രണ്ടിൽ മുറ്റത്ത് ഞങ്ങൾ തന്നെ കുറച്ച് എന്താണ് പടികൾ അതിനെ ഇങ്ങനെ മറക്കണ വിധത്തിൽ കെട്ടി കുറച്ച് ചെങ്കല്ലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ ചെങ്കല്ല് വെച്ച് കെ ബോർഡറാക്കി തിരിച്ച് അതിൻ്റെ ഉള്ളിൽ ചെ ചെടി ഞങ്ങൾ പൈസക്കൊന്നും ഒരുപാട് വാങ്ങാറില്ല വേറെ എവിടെ നിന്നും മുറിക്കുന്നതോ അങ്ങനെ എന്താണ് വെട്ടി കളയുന്നതെല്ലാം കൊണ്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വെക്കാറാണ് പതിവ് നല്ല നല്ല ഭംഗിക്കു തന്നെ വെച്ചിട്ടുണ്ട് വലിയ വലിയ മരം ആകുന്നത് ഒരു സൈഡ് സാധാ റോസ് മുല്ലാ ചെറിയ ചെറിയ കൊക്കിച്ചെടി അങ്ങനത്തെ കളർ കളർ കൊക്കി പത്ത് മണി എട്ട് മണി അങ്ങനത്തെ ചെടികളൊക്കെ വരിവരിയായി വെച്ചിട്ടുണ്ട് ചെമ്പരത്തിയൊക്കെ വേറെ സെക്ഷനിൽ ഇപ്പോൾ ചിലരൊക്കെ നിറയെ പൈസക്ക് പണം വാങ്ങി നല്ല രീതിക്ക് സിമെൻറ്റൊക്കെ ഇട്ട് നല്ല രീതിക്ക് സൈഡൊക്കെ കെട്ടി എടുക്കുന്നവരാണ് ഞങ്ങളുടെ അങ്ങനെ അല്ല ചിലവില്ലാത്തൊരു പൂന്തോട്ടമാണ് ഞങ്ങളുടെ ചിലവില്ലാണ്ട് നമുക്ക് പൂന്തോട്ടം ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു രീതിയിൽ എങ്ങനെ ചെയ്താലും ഗാർഡൻ നല്ല ചന്തമായിട്ടു തന്നെ ഇരിക്കുക ഞങ്ങളുടെ ഗാർഡൻ വളരെ ചന്തമുള്ളതാണ് നിറയെ പൂക്കളൊക്കെ വിരിഞ്ഞു നിന്ന് ചെണ്ടുമല്ലി അത് ഇതൊക്കെ അ എൻ്റെ അമ്മ പോകുമ്പോൾ വാ ഓരോ അവിടേക്ക് പോകുമ്പോൾ വലിച്ചിട്ട് വരാറുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളുടെ മുറ്റം മുറ്റവും മുറ്റത്തിൻ്റെ അവിടെയൊരു കനാലുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കുറേ സ്ഥലമുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ ചെമ്പരത്തി കളർ കളർ ചെമ്പരത്തികളെല്ലാം വെച്ച് ഗാർഡൻ ഞങ്ങളുടെ ഗാർഡൻ ചിലവേറാത്തൊരു ഗാർഡനായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്